ജീവിതം എന്നുപറയുന്നത് നൈമിഷ്മികമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ട ഒന്ന് തന്നെയാണ് സമയം എന്നു പറയുന്നത് ഓരോ നിമിഷത്തിനും അതിൻ്റേതായ വിലയുണ്ട് ഓരോ നിമിഷം കഴിയുമ്പോഴും അതുപോലെതന്നെ ഓരോ നിമിഷത്തിനും നമ്മളതിൻ്റേതായ വില കൊടുക്കേണ്ടതുണ്ട് ജീവിതത്തിൽ അതുപോലെ പ്രാധാന്യം നൽകേണ്ട മറ്റൊന്നാണ് ഭക്ഷണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഭക്ഷണത്തിനും അതുപോലെ വെള്ളത്തിനും ജലത്തിനും ഒരുപാട് ഒരുപാടൊരുപാട് പ്രാധാന്യം ഉണ്ട് പിന്നെ യാത്ര യാത്ര നമ്മുടെ മാനസികനിലയെ വളരെ ഒന്നായും നല്ലരീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് കൂടുതൽ യാത്രചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷങ്ങളും കുറേ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാനും സാധിക്കും യാത്രകൾ നമ്മുടെ ജീവിതത്തില് ഏറ്റവും വില നൽകുന്ന ഒന്നാണ് സമയമാണ് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ട ഒന്നായി കാണുന്നത് അതുപോലെ ഭക്ഷണം പാർപ്പിടം വസ്ത്രം എല്ലാം ജീവിതത്തിൽ വില നൽകുന്ന ഒന്ന് തന്നെയാണ് യാത്രകൾ ചെയ്യുന്നതോടെ നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കാൻ സാധിക്കും